ഞാനീ ഫോണ് വാങ്ങിയിട്ട് ഇപ്പം ഏകദേശമൊരു മൂന്ന് വർഷത്തോളാവാറായി ഇതിനെ പറ്റി നെഗറ്റീവായിട്ട് പറയുവാണെങ്കിൽ കാര്യായിട്ടൊന്നൂല്ല എന്നാലും ഗെയിമ് കളിക്കുമ്പോ നല്ലപോലെ ഹീറ്റാവുന്നുണ്ട് ചാർജ് പോകുന്നുണ്ട് ഉച്ചവരയ്ക്കു രാവിലെ തൊട്ട് ഗെയിമ് കളിക്കുവാണേൽ ഉച്ചയാവുമ്പേഴ്ത്തേക്കു ചാർജ് തീരും ഒരു മുപ്പത് താഴെയാവും അതുപോലെ ഹീറ്റ് നല്ല ഹീറ്റിഷ്യു ഉണ്ട് പിന്നെന്താ പിന്നെ ഫോണില് പ്രൊസസ്സർ അത്ര ഇതല്ലാത്തോണ്ട് ഇടയ്ക്ക് ലാഗൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലാഗായിട്ട് തോന്നുന്നുണ്ട് ഗെയിമ് കളിക്കുമ്പം മാത്രം ആവറേജ് യൂസിന് കുഴപ്പമില്ല് പിന്നെ ഗെയിമും പിന്നെ ആവറേജ് യുസിനത്ര കുഴപ്പമില്ലെങ്കിലും ഒരു ദിവത്തെയൊക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് എന്നാലും അത് പോരാ ചില സമയത്ത് നമ്മള് യാത്രയൊക്കെ ചെയ്യുവാണെൽ പാട്ടല്ലേ കേൾക്കുവാണേൽ അല്ലേൽ സിനിമ കാണുവാണെങ്കിലൊക്കെ ചാർജ് പോകും സിനിമയൊക്കെ കാണുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റിയിൽ കാണുവാണെങ്കിൽ നല്ലപോലെ ചാർജ് വലിക്കുന്നുണ്ട് അതുവല്ല അന്നേരവും ചെറിയ ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്